നമ്മുടെ ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങള് നമ്മള് ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും അതിനെക്കുറിച്ച് അറിയാൻ ശ്രമിച്ചത് എന്താ പറയുക നക്ഷത്രങ്ങളെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് ചെറിയ ക്ലാസ്സിലെ തൊട്ട് നമ്മള് നക്ഷത്രങ്ങളെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ ഞാൻ നക്ഷത്ര നിരീക്ഷണം തുടങ്ങിയത് എന്താ പറയുക ചെറിയ ബൈനോക്കുലറെടുത്തിട്ട് വെച്ചിട്ടായിരുന്നു പിന്നെ ഓരോ നക്ഷത്രങ്ങൾ ഓടുന്നതൊക്കെ ശ്രദ്ധയിൽ പെട്ടായിരുന്നു രാത്രി കാലങ്ങളിൽ മുറ്റത്തേക്ക് നോക്കി മുറ്റത്തിറങ്ങി നിന്ന് ആകാശത്തേക്ക് നോക്കി ഞങ്ങളൊരുപാട് നക്ഷത്രങ്ങളെ നോക്കാറുണ്ട് അതുപ്പോലെതന്നെ ഇപ്പോൾ ബൈനോക്കുലറുണ്ട് ഇപ്പോൾ എനിക്ക് അതു ഉപയോഗിച്ചാണ് നക്ഷത്ര നിരീക്ഷണം നോക്കാർ അതെപ്പോലെത്തന്നെ വേട്ടക്കാരൻ അങ്ങനെയൊരുപാട് നക്ഷത്രങ്ങളെക്കുറിച്ച് പഠിക്കുന്നുണ്ട്